മലയാള ഭാഷ സംരക്ഷിക്കണ്ടതു വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം മാതൃഭാഷ അത് പഠിക്കേണ്ടതും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ടതും വളരെ അത്യന്താപേക്ഷിതമാണ് കാരണം ഇപ്പോള് വളർന്നുവരുന്ന പുതുതലമുറ മലയാളം വായിക്കുവാനോ എഴുതുവാനോ പോലും അറിയത്തില്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണുള്ളത് മലയാളത്തിൽ സംസാരിക്കാൻ പോലും പുതു തലമുറയ്ക്കു കഴിയുന്നില്ല അതുകൊണ്ടുതന്നെ മലയാള ഭാഷ നമ്മുടെ മാതൃഭാഷ അതു സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതു സംരക്ഷിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതുമുണ്ട് കാരണം മാതൃഭാഷ എന്നു പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഒക്കെ ഒരു ഭാഗമാണത് നമ്മുടെ കുട്ടികളില് അല്ലെങ്കില് പുതിയ തലമുറയ്ക്ക് പല കാര്യങ്ങളും പകർന്നുകൊടുക്കുന്നതിനും അവര് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നതിനും അങ്ങനെ മനസ്സിലാക്കിയവര് മുന്പോട്ടു പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ തനതായ സംസ്കാരവും പൈതൃകവും അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്തങ്ങളായ പല കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളു അതുകൊണ്ട് മലയാള ഭാഷ വളരെ പ്രയോജനകരമായ പുതുതലമുറയ്ക്കു വളരെ പ്രയോജനകരമായ രീതിയിൽത്തന്നെ മുന്പോട്ടു കൊണ്ടുപോകേണ്ടതിന് അതു പഠിക്കേണ്ടതിനും പഠിപ്പിക്കുന്നതിനും ആവശ്യമായ നടപടികൾ എടുത്തേ പറ്റു നമ്മുടെ വിദ്യാലയങ്ങളില് മലയാളം മീഡിയം സ്കൂളുകളുണ്ട് മലയാളം മീഡിയം സ്കൂള് ഇന്നിപ്പോള് നമ്മുടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കൂണുപോലെ പൊട്ടിമുളച്ച് നമ്മുടെ മലയാള ഭാഷയെത്തന്നെ അവഹേളിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണു കാര്യങ്ങൾ പോകുന്നത് കാരണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലൊക്കെ പിള്ളേരെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അവര്ക്ക് അവരുടെ മാതൃഭാഷ അവർക്കു കൈകാര്യം ചെയ്യുന്നതിനോ എഴുതുന്നതിനോ അതുപോലെ തന്നെ വായിക്കുന്നതിനോ ഒന്നും സാധിക്കുന്നില്ല അങ്ങനെ വരുന്നൊരു രീതി ഇപ്പോള് നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഗവൺമെൻ്റ് തലത്തില് മാതൃഭാഷയ്ക്കു ധാരാളം പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട് അതുപോരാ കൊറേയും കൂടി കുട്ടികളിലേക്ക് എൻ്റഭിപ്രായത്തില് ഒരു എൽ കെ ജി യു കെ ജി ഒരു നാലാം ക്ലാസ് വരെയെങ്കിലും മാതൃഭാഷയില് വിദ്യാഭ്യാസം തുടരുകയും നാലാം ക്ലാസ് കഴിഞ്ഞതിനുശേഷം മറ്റിതര ഭാഷകള് ഇംഗ്ലീഷായാലും ഹിന്ദിയായാലും സംസ്കൃതമായാലും മറ്റിതര ഭാഷകൾ സംസാരിക്കുന്നതിന് ഉള്ളൊരു അവസരം നന്നായിട്ട് കൊടുത്തുകഴിഞ്ഞാല് നമ്മുടെ മാതൃഭാഷ സംരക്ഷിക്കപ്പെടാനുള്ള എല്ലാ അവസരങ്ങളുമുണ്ട് ഇപ്പോള് മലയാളിയുടെ മക്കൾക്ക് ഇപ്പോള് വിദേശ രാജ്യങ്ങളിലാണേലും അവർക്ക് മലയാളം എഴുതുവാനോ വായിക്കുവാനോ പറ്റുന്നില്ല അപ്പോഴൊരു പുതിയ തലമുറകൾ മുഴുവൻ വിദേശ പഠനത്തിനൊക്കെ പോകുകയാണ് അവർക്കാവശ്യം ഇംഗ്ലീഷാണ് ആ ഒരു കാഴ്ചപ്പാടില് അവര് മറ്റു ഭാഷകൾ പഠിക്കുകയും മാതൃഭാഷയെ അവഗണിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ട് അതു കൂടുതലും മാതാപിതാക്കളാണു ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കള് മാതൃഭാഷ പഠിപ്പിക്കുന്നതിനും അത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്താലേ അത്തരം കാര്യങ്ങൾ സാധ്യമാവുകയുള്ളൂ അതു വളരെ ശ്രദ്ധിക്കപ്പെടേണ്ടൊരു കാര്യമാണ്